സിനിമ മേഖലയിലെ കലാകാരന്മാരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ സത്യസന്ധമാണോ കൃത്യത ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് സത്യസന്ധതയുണ്ട് കൃത്യതയുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ രണ്ടും ഉണ്ട് ചാനലുകാർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ പലതും സിനിമ മേഖലയിലെ നടന്മാരെക്കുറിച്ചും നടിമാരെക്കുറിച്ചും പറയുന്നുണ്ട് അതിൽ കുറച്ചൊക്കെ സത്യമാണ് കുറച്ചൊക്കെ നുണയാണ് ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ മേഖലയിലെ ആൾക്കാരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒത്തിരി ഞാനും കേൾക്കുന്നുണ്ട് എല്ലാവൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് നമുക്ക് അറിയാം വിശ്വസിക്കാതിരിക്കാനും പറ്റില്ലാത്ത ഒരവസ്ഥയാണ് അവരെക്കുറിച്ച് ഇത്രേം വ്യാജവാർത്തകൾ വരുന്നത് ഒരു പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയ തുറന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഓരോരുത്തർക്കും അക്കൗണ്ടുകളുണ്ട് ഫോളോവേഴ്സ് ഉണ്ട് അപ്പം വരുമാന മാർഗ്ഗം കിട്ടാൻ വേണ്ടി എനിക്ക് ഇപ്പോൾ ഒരു പത്തോ അൻപതോ അറുപതോ പേര് എൻ്റെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി വരുമാനം കിട്ടും അതിന് വേണ്ടി ആരെക്കുറിച്ച് എന്തും പറഞ്ഞ് വിടും എന്നിട്ട് അപ്പം ആൾക്കാർ ഇതിങ്ങനെ കാണും അപ്പം അത് സത്യാന്ന് വിശ്വസിക്കും അങ്ങനെ വരുമാനം കിട്ടും ഈ വരുമാനം കിട്ടാൻ വേണ്ടിയാണ് കൂടുതലും അപ്പം ഇങ്ങനെ വ്യാജ വാർത്തകൾ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞൊണ്ടാക്കിക്കൊണ്ടിരിന്ന് കഴിഞ്ഞാൽ അത് ഈ യൂട്യൂബ് ഫോളോവേഴ്സിൽ ഇവൻറ്റൊക്കെ കൊടുത്ത് നല്ല വരുമാനം കിട്ടും യൂട്യൂബ് ചാനല് ഉണ്ട് ഉള്ളവരുണ്ട് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ചാനല് നടത്തി വരുമാനം ഉണ്ടാക്കുന്നോരുണ്ട് അവർക്ക് ഒക്കെ വരുമാനംമാകാൻ കിട്ടാൻ വേണ്ടിയാണ് കൂടുതലും വ്യാജ വാർത്തകൾ ഇപ്പം അവരെക്കുറിച്ച് ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒക്കെ ഒത്തിരി വ്യാജ വാർത്തകൾ ഞാനും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടൊണ്ട് അപ്പം നമ്മൾ ആദ്യം അത് കേൾക്കുമ്പോൾ വിശ്വസിക്കും ശരിയായിരിക്കും ഇവർ ഇന്നവർ പറയുന്നത് ശരിയായിരിക്കും ഇന്നെ ആളുടെ കല്യാണം രണ്ടാമത് കഴിഞ്ഞു അങ്ങനെയൊക്കെ ഒത്തിരി വാർത്തകൾ ഞാനും കേക്കും പക്ഷേ അവർ നേരിട്ട് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പറയുമ്പോഴാണ് ഇവർ ആൾക്കാരൊക്കെ പറഞ്ഞത് എന്ത് തെറ്റാണ് അതിന് എന്ത് സത്യസന്ധത ഉണ്ട് എന്ത്മാത്രം നമ്മൾ പറഞ്ഞ് അവർ പറഞ്ഞത് സത്യവാണ് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇതുവഴിയാണ് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബില് യൂട്യൂബ് ചാനലൊള്ള യൂട്യൂബ അങ്ങനെ ഉള്ളവർക്ക് നല്ല വരുമാനം യൂട്യൂബ ചാനല് വഴി കിട്ടുന്നുണ്ട് അവർക്ക് ആ വരുമാനത്തിന് വേണ്ടി അവർ ആരെയും എന്തും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കയാണ് അതാണ് ഇത് ഇത്രയും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം സത്യസന്ധം ആണോന്ന് ചോദിച്ചാൽ ചിലതൊക്കെ സത്യസന്ധമാണ് ചിലതൊക്കെ സത്യസന്ധമല്ല ഉദാഹരണം പറയാൻ ഉദാഹരണായിട്ട് പറയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റെ നമ്മുടെ പ്രശസ്തമായ ഒരു സിനിമ സീരിയൽ നടനുണ്ടായിരുന്നു സീരിയലല്ല ഒരു മിമിക്രി കലാകാരനാണ് കൊല്ലം സുധി പുള്ളിയുടെ ഭാര്യ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡയിലുള്ള ഇപ്പോൾ ഭയങ്കരമായിട്ട് വയറലായിക്കൊണ്ടിരിക്കുന്നൊ ഒരു ഇതാണ് പക്ഷേ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു ഇൻറ്റർവ്യൂൽ പറഞ്ഞു ആൾക്കാർക്ക് വേറെ ഒന്ന് പറഞ്ഞുണ്ടാക്കാം എനിക്ക് എന്നെ അറിയാം ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം കൊല്ലം സുധീടെ ഭാര്യയായിട്ട് ജീവിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം പറഞ്ഞു പുള്ളിക്കാരിനെ താത്തി കെട്ടാനും പിന്നെ കാണുന്ന ആൾക്കാർക്ക് കുറച്ച് റീച്ചുണ്ടാക്കാനും വേണ്ടി ഇങ്ങനെ ഓരോ യൂട്യൂബ ചാനലുകൾ വഴി ഇങ്ങനെ ഓരോ റിപ്പോർട്ടർമാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നു പക്ഷേ അത് നൂറ് ശതമാനവും തെറ്റായിരുന്നു പുള്ളിക്കാരി പുള്ളിക്കാരിക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഇതിന് പുള്ളിക്കാരി ജീവിക്കാൻ വേണ്ടിയാണ് ഈ പരസ്യ ചിത്രങ്ങളിലും നാടകത്തിലും അങ്ങനെയൊക്കെ അഭിനയിച്ചു ഈ നാടകത്തിലും പരസ്യ ചിത്രത്തിലൊക്കെ ഓരോ നടന്മാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ അതടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അത് അവർ വിവാഹം ചെയ്തതാണ് അല്ലെങ്കിൽ അവർ വിവാഹം കഴിച്ചു കൊല്ലം സുധീടെ ഭാര്യ കൊല്ലസുതീനെ മറന്ന് പോയിന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഒത്തിരി വാർത്തകൾ വരുന്നുണ്ട് അതൊക്കെ നുണയാണ് അതുകൊണ്ട് ഇതിൻറ്റകത്ത് സത്യസന്ധമായിട്ട് മറുപടി പറയുന്നവർ ഉണ്ട് തെറ്റായിട്ട് മറുപടി പറയുന്നവർ ഉണ്ട് നമുക്ക് ഇപ്പം ഇതിൽ വ്യാജന്മാരാണോ വ്യാജ വാർത്തയാണോ നല്ല വാർത്തയാണോ ഒന്നും മനസ്സിലാക്കാനോ അറിയാനോ സാധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പം നാം കടന്ന് വന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സിനിമ മേഖലയെക്കുറിച്ച് കലാകാരന്മാരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് കുറച്ചൊക്കെ സത്യമുണ്ട് കുറച്ചൊക്കെ നുണയാണ് എല്ലാം എല്ലാം വിശ്വസിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ വിശ്വസിക്കുകയും ബാക്കി വിശ്വസിക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്